ഹലോ ആ ട്രഡീഷണൽ ഹൗസോ എങ്ങനത്തെയാണ് എടീ നിനക്ക് വേണ്ടത് ആ റെന്റ് റെന്റിനേ ഉള്ളൂ അല്ലാണ്ട് അല്ലാണ്ടുള്ള ട്രഡീഷണൽ ഹൗസ് ഒന്നുമില്ല എത്ര ദിവസത്തേക്ക് വേണ്ടത് എടീ പത്ത് ദിവസത്തേക്കാണോ ആർക്കാണ് ഫ്രണ്ട്സ് വരുന്നുണ്ടോ ആ ഓക്കെ അപ്പം എന്നാണ് നിനക്ക് വേണ്ടത് രണ്ടാഴ്ച്ചക്കുള്ളിലേക്ക് വേണം അല്ലേ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഇവിടെത്തന്നെ ആ നമ്മുടെ നടുമുറ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ആ ആ ഓക്കെ ഓക്കെ ആ അത് നമ്മുടെ കസ്റ്റഡിയിൽ ഇഷ്ടം പോലെയുണ്ട് ആ ഓണം ഷൂട്ട് കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അങ്ങനത്തെ ആ നീ വരുവാണെങ്കിൽ നമ് ആ ഇല്ലം തറവാട് അങ്ങനത്തെ നിനക്ക് ഏതാണോ വേണ്ടത് അതെല്ലാം നമ്മുടെ റെ

അത് നമുക്ക് റെഡി ആക്കാം പത്ത് എത്ര പേരുണ്ട് അഞ്ച് പേരാണോ ആ അഞ്ച് പേർക്കുള്ള ഫുഡ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം പത്ത് ദിവസത്തേക്ക് അല്ലേ ആ അവിടെത്തന്നെ നിങ്ങൾക്ക് വയ്ക്കാം കുഴപ്പമില്ല അത് എന്താണ് പറയുക നമ്മുടെ മൂർത്തികളുടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം റെഡി ആക്കാവുന്നതേ ഉള്ളൂ നി നിൻ്റെ അടുത്തറിയാവുന്ന ഫ്രണ്ട്സ് ആണോ അതേയല്ലേ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ നീ എന്നെ ആ വണ്ടിയൊക്കെ എത്തുന്ന സ്ഥലമാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പെർ ഡേ അയ്യായിരം ആണ് അപ്പം ഫുഡ് അതിൽ അലൗ അല്ല അപ്പം അലൗ ചെയ് അതിനും കൂടെ കൂട്ടിയിട്ട് കുറച്ച് റേറ്റ് കൂടുതൽ വരും അതായത് ഓരോ ഫുഡിനനുസരിച്ചിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ആ അതൊക്കെ നമുക്ക് ഇവിടെത്തന്നെ നമ്മൾ ഒരു ചേച്ചിയാണ് ചെയ്ത് തരുന്നത് അതിപ്പോൾ നമ്മൾ ആ ഒരു വീട് ഓരോ സ്ഥലത്താണ് ഓരോ വീട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നീ ഒന്ന് വന്ന് കണ്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ അവർക്ക് ഇട്ട് കൊടുക്കുക അവർക്ക് താൽപര്യം വന്നാലല്ലേ നമുക്ക് ഇത് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ആ അപ്പം നീ എന്ത് ചെയ്യുക നാളെ മറ്റന്നാളോ ഒന്ന് വന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് കാണുക എന്നിട്ട് വേണം അവർക്ക് ഫോട്ടോ ഇട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ അങ്ങനെയാണെങ്കിൽ നീ നാളെയൊന്ന് വന്നേക്ക് കേട്ടോ ഓക്കെ എന്നാൽ